ഹലോ ആ ഹലോ അതെല്ലോ അതെല്ലോ എന്നത്തേതിനായിരുന്നു ഓ ആ ഒ പേരൊന്ന് പറയുമോ പേരൊന്ന് പറയാമോ ആ ഒന്ന് നോക്കട്ടെ ആ പറഞ്ഞോളൂ സാർ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഓ ശരി ശരി ആ ഒരു മിനിറ്റ് സാർ നിങ്ങളുടെ സമയം എപ്പോഴായിരുന്നു പറഞ്ഞത് ആ ഉണ്ടല്ലോ സാർ അന്നൊരു വേറൊരു പ്രോഗ്രാം ഉണ്ടല്ലോ ഒരു മാര്യേജ് ഫംഗ്ഷൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല സാറേ ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് വയ്ക്കാം ബർത്ത്ഡേ പാർട്ടി അല്ലേ കുഴപ്പമില്ലല്ലോ ആ ശരി ശരി അതേ ഉള്ളൂ നിങ്ങൾ സമയം നേരത്തെ പറഞ്ഞാൽ മതി തലേ ദിവസം പറഞ്ഞാൽ മതി

അത് ഞ അല്ല അല്ല ഞങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മതി നാളെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ സമയം പറയാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സമയം ഒത്തിരി വൈകിയാൽ പിന്നെ നിങ്ങൾ തന്നെ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും

ഇല്ല അതിവിടുന്ന് ആ അല്ലല്ല അത് ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നോളും അതെല്ലാം കൂടെ കൂടിയാണ് പേ ചെയ്യേണ്ടത് സാർ

ആ എല്ലാം എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തോളാം കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ സാധാരണ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് സാർ എവിടുന്നായിരുന്നു വിളിക്കുന്നത് ഓ ശരി ശരി എത്ര പേരുടെ ഫംഗ്ഷൻ ആയിരുന്നു ഓ ശരി ശരി ഓക്കെ ഓക്കെ അല്ല നമുക്ക് അറിഞ്ഞിട്ട് തന്നെ അതിൻ്റെ ടേബിൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനേ ശരി ആ അഡ്വാൻസ് സാറിന് പറ്റുമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാമോ ഒരു ഫൈവ് തൗസൻഡ് എങ്കിലും ആ ഹാ ഹാ ആ ആ വാട്ട്സാപ്പ് ചെയ്തേക്കാം വാട്ട്സാപ്പ് ചെയ്തേക്കാം ഇപ്പം തന്നെ ചെയ്തേക്കാം ഓക്കെ ആ വേറെ ഒന്നും ഇല്ലല്ലോ സാർ അത് കുഴപ്പം ഇല്ല സാർ വരുമ്പം സെക്യൂരിറ്റി അത് പറഞ്ഞോളും പാർക്കിങ്ങ് കുഴപ്പമൊന്നും ഇല്ല അതൊന്നും ബുദ്ധിമുട്ടൊന്നും ആവില്ല മറ്റേ മാര്യേജ് ഉണ്ടെങ്കിലും കുഴപ്പം ഒന്നുമില്ല നമുക്കുണ്ട് പാർക്കിങ്ങിന് കുഴപ്പമില്ല മാര്യേജ് ഫംഗ്ഷൻ അത് ഈവനിംഗ് ഫംഗ്ഷൻ ആയിട്ടാണ് ഒരു ആറ് മണി ആവുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളുടേത് ഒരു നാല് മണിക്ക് ശേഷമാണോ ഓ ശരി ഓക്കെ ഓക്കെ